എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ യാത്ര പോകുന്നതാണ് ഏറ്റവും കൂടുതലിഷ്ടം എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ നാത്തൂൻ എല്ലാവരുമുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ട്രിപ്പ് ഒക്കെ പോകാറുള്ളത് തന്നെയെല്ല ഫാമിലിയുടെ കൂടെ പോവുകയാണെങ്കിൽ നമുക്കൊരു സുരക്ഷിതത്വം പ്രൊട്ടക്ഷനും എല്ലാം ഉണ്ടാവും പിന്നെ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് വണ്ടിയിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് താൽപര്യം ഉള്ളിടത്ത് നിർത്തി എത്ര സമയം വേണമെങ്കിലും ചിലവഴിച്ച് നല്ല ഇഷ്ടമുള്ള സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പതുക്കെ നമുക്ക് യാത്ര പോവാം ഞങ്ങളേറ്റവും അടുത്ത് പോയിട്ടുള്ളത് ഞങ്ങൾ കന്യാകുമാരിക്ക് പോയതാണ് കന്യാകുമാരിയിലാണെങ്കിൽ അവിടെ വിവേകാനന്ദപ്പാറ കാണാനുണ്ട് അവിടെ അമ്പലമുണ്ട് അങ്ങനെ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് ഞങ്ങളിതിന് മുന്നും കന്യാകുമാരി രണ്ടു മൂന്നുവട്ടം പോയിട്ടുണ്ട് എന്നാലും അവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ കാണാൻ പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് പിന്നെ ഈ കടൽ കഴിഞ്ഞ് ബോട്ടിൽ കയറിയിട്ട് വിവേകാനന്ദപ്പാറയിൽ പോവുക അതിനകത്തുള്ള മ്യൂസിയം കാണുക അതൊക്കെ വളരെ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാഴ്ചകളാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോടൊപ്പം തന്നെ യാത്ര പോവാൻ ആഗ്രഹിക്കുന്നു